ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ജനുവരി ഒന്നാം തീയതിയാണ് കണ്ണൂർ രൂപം കൊള്ളുന്നത് പിന്നെ കണ്ണൂരെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ കോലോത്തിരി രാജവംശത്തിൻ്റെയും മുസ്ലിം രാജവംശമായ അറക്കലിൻ്റെയും ഭരണത്തിന് കീഴിലുള്ള പ്രദേശമായിരുന്നു ആദ്യം പിന്നെന്നു വച്ചിട്ടുണ്ടെങ്കിൽ ത ത തിറകളുടെ നാട് അല്ലെങ്കിൽ തെയ്യങ്ങളുടെ നാട് എന്നാണ് കണ്ണൂർ ജില്ലയെ അറിയപ്പെടുന്നത് കണ്ണൂരിൻ്റെ ഒരു പ്രധാന ഉത്സവമാണ് തിറ എന്ന് പറയുന്നത് പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണൂരിലെ മറ്റു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകളുള്ള ഒരു നാടാണ് കണ്ണൂർ എന്ന് പറയുന്നത് തെന്നാഞ്ചിറ ഫോർട്ട് പിന്നെ പയ്യാമ്പലം ബീച്ച് മുഴുപ്പിലങ്ങാട് ബീച്ച് അതുപോലെ തന്നെ പറശ്ശിനിക്കടവ് പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്ക് പിന്നെ അതുപോലെ തന്നെ അറയ്ക്കൽ മ്യൂസിയം പിന്നെ അതുപോലെ തന്നെ പറയാണെങ്കിൽ കൊട്ടിയൂര് ശിവക്ഷേത്രം പിന്നെ മുഴപ്പിലങ്ങാട് ബീച്ച് പറഞ്ഞ് അങ്ങനെ ഒരുപാട് ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുള്ള അല്ലേൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുള്ള ഒരു നാടാണ് കണ്ണൂര് അതുപോലെ കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷം ഉത്സവങ്ങൾ എന്ന് പറയുന്നത് കൊട്ടിയൂര് വൈശാഖ മഹോത്സവവും പിന്നെ അതുപോലെ തന്നെ മാഹി പള്ളി പെരുന്നാളൊക്കെ ഒരുപാട് ആൾക്കാർ സന്ദർശകർ ഉണ്ടാകുന്ന വിശേഷമായിട്ടുള്ള ഉത്സവങ്ങൾ തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ പറയുകയാണ് ഏഷ്യയിലെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ നോവൽ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ പ്ലൈവുഡ് ഫാക്ടറി അതും ഇന്ത്യ ഈ ജില്ലായിലാണ് ഉണ്ടായിരുന്നത്